ഞാന് തുന്നൽ ജോലിയെനിക്കിഷ്ടമാണ് എങ്കിലും അത് കൃത്യ സമയത്ത് കൊടുക്കേണ്ട ചില കാര്യങ്ങള് പിന്നെ ചില ഒരു ഒരു ഡേറ്റില് നമ്മള് കൊടുക്കാവെന്നും പറഞ്ഞിരുന്ന കാര്യങ്ങള് ആ സമയത്ത് കൊടുക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോള് ഒരു ഒത്തിരി ടെൻഷൻ എനിക്ക് വേറെ മറ്റു വേറെ കാര്യങ്ങള് ചെയ്യണ്ടിവന്നപ്പോഴും ഇച്ചിരി അസുഖങ്ങളൊക്കെ വര്കയും എക്ക ചെയ്തപ്പോള് ആ പറഞ്ഞ ഡേയ്റ്റില് അത് കൃത്യമായിട്ട് ചെയ്തുകൊടുക്കാനായിട്ട് സാധിക്കാതെ ചെയ്തുകൊടുത്തു പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാനൊത്തിരി ടെൻഷൻ പിടിച്ചു അത് ഇടയ്ക്ക് അത് ടെൻഷൻ ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ പേരില് പെട്ടന്ന് ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ പേരില് സ്പീഡില് അതു ചെയ്ത് മറ്റുള്ളവരുടെ സഹായം തേടി അവരെ കൊണ്ടുവൊക്കെ ചെയ്യിപ്പിച്ചപ്പോഴ്ച്ചതിലക്കെ ഇച്ചിരി പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴങ്ങനെ വന്നപ്പോള് ഒത്തിരി ടെൻഷനോട് കൂടിയാണത് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചത് കൃത്യ സമയത്ത് അത് കൊടുക്കണ്ടതായിരുന്നതുകൊണ്ട് കൃത്യ സമയത്ത് കൊടുത്തു പക്ഷേ അതിന് ഒത്തിരി വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോള് അതിൽ നിന്ന് ഞാന് മനസ്സിലാക്കിയ ഒരു സംഭവം കാര്യം ചെയ്ത് ഒരാളോടൊരു കാര്യം പറഞ്ഞെന്നാലത് നമ്മള് കൃത്യമായിട്ട് കൃത്യ സമയത്ത് ചെയ്ത് മുൻകൂട്ടി തന്നെയതിന് വേണ്ട കാര്യങ്ങളാ കൃത്യ സമയത്ത് ചെയ്യാതെ വേണ്ട കാര്യങ്ങള് പടിപടിയായിട്ട് ചെയ്ത് ആ സമയത്ത് കൊടുക്കണം എന്നൊള്ളൊരു നിഷ്ഠയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് അല്ലങ്കില് ടെൻഷൻ പിടിക്കും പിന്നെ മറ്റുള്ളവരോട് നമ്മള് ദേഷ്യപ്പെടേണ്ടി അരിശപ്പെടണ്ടിയൊക്കെ സാഹചര്യങ്ങള് വരും ഇപ്പോള് അതൊക്കെ ഒഴിവാക്കി കൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കില് ഇപ്പോള് ഇങ്ങനൊരു കാര്യം ചെയ്ത് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പല പല കാര്യങ്ങളും നേരത്തെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നേരത്തെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും